എൽ പി ജി കണക്ഷനുണ്ട് എൽ പി ജി കണക്ഷൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് പറയുമ്പം നമ്മള് പ്രതീക്ഷിച്ച സമയത്തു തന്നെ പാചകം ചെയ്തെടുക്കാനും അതിനടുത്തുതന്നെ നിന്ന് നോക്കാതെ കുക്കെയാനും സാധിക്കുന്നു വിറകടുപ്പ്ന്ന് പറയുമ്പോൾ വിറകടുത്ത് അടുത്തുതന്നെ നിന്ന് പാചകം ചെയ്യേണ്ട അവസ്ഥയാണ് പുകയും കാര്യങ്ങളും മറ്റൊക്കെ വന്ന് രണ്ടിനും ദോഷവും ഗുണങ്ങളും ഉണ്ടെങ്കിലും എൽ പി ജി കണക്ഷൻ കുറച് കൂടി ഗുണകരമാണ്